കേരളത്തിന്റെ മാതൃഭാഷയാണ് മലയാളം നാം പലരും ഇപ്പം മലയാളം സംസാരിക്കാന് വേണ്ടിയിട്ട് മടിക്കുകയാണ് മലയാളം സംസാരം കേരളത്തിൽ തന്നെ ഇപ്പം വളരേ കുറവാണ് നമ്മുടെ ഏറ്റവും കൂടുതലും കവിതകളും കഥകളും രചിച്ചിട്ടുള്ള രചിച്ചിട്ടുള്ളത് മലയാളത്തിലാണ് മലയാളഭാഷയുടെ പിതാവും മലയാള അക്ഷരമാലയുടെ പിതാവും തുഞ്ചത്ത് എഴുത്തച്ഛനാണ് ഇക്കാലത്ത് മലയാളഭാഷ സംസാരിക്കുന്ന നാം പലരും മടിച്ചു മടിച്ചു കൊണ്ട് ഇംഗ്ലീഷ് മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ തന്നെ പല ശൈലികള് കൊ മലയാളമാണെങ്കില് പോലും ശൈലികള് പല തരത്തിലാണ് സംസാരിക്കുന്നത് തിരുവനന്തപുരത്താണെങ്കില് പോലും മലപ്പുറത്തണെങ്കിലും ഈ കോഴിക്കോടാണേലും എവിടെയാണെങ്കിൽ മലയാളം പോലും പല പല രീതിയാലാണ് സംസാരിക്കുന്നത് കേരളത്തില് ഏറ്റവും കൂടുതലും പറയുന്ന ഭാഷയും മലയാളമാണ് എന്നെ പത്താം ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ചിട്ട് ഉള്ളത് സ് ഒര് സാറാ സുനില്സാറെന്ന് പറഞ്ഞിട്ടൊരു സാറാണ് അയാളും മലയാളഭാഷക്ക് എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട് കേരളത് നം സാറ് പറയുമായിരുന്നു ഞങ്ങളെത്ര എത്ര മലയാളം നിങ്ങളെത്ര പഠിച്ച് പഠിച്ച് എത്ര ഉന്നതിയിലെത്തിക്കഴിഞ്ഞാലും മലയാളം എന്നുള്ള ഭാഷ മറക്കരുത് മലയാളമാണ് നമുക്ക് ജീവതത്തിൽ ഏറ്റവും കൂടുതല് ആവശ്യമുള്ള ഭാഷ മലയാളം കൊണ്ട് മാത്രം നമുക്ക് ജീവിക്കാന് കഴിയും അങ്ങനെ ഒക്കെ സാറ് കുറെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട് മലയാളാണ് ഏറ്റവും നല്ല ഭാഷ നമ്മുടെ മാതൃഭാഷ നമ്മള് കൈവിടാതെ സൂക്ഷിക്കാനും പറഞ്ഞ് തന്നിട്ടുണ്ട്